ഹലോ ഹലോ പ്രിൻസിപ്പളല്ലേ ആ ഞാൻ അഞ്ച് ബിയിൽ പഠിക്കുന്ന ബോണിയുടെ അമ്മയാണേ മാഡം എ എങ്ങനുണ്ട് കുഞ്ഞിൻ്റെ പഠിത്തവും കാര്യങ്ങളുമൊക്കെ എങ്ങനെ പോകുന്നു ആ അവന് പനിയായിരുന്നു ഒരാഴ്ചയായിട്ട് പനിയായിരുന്നു അതുകൊണ്ടൊക്കെയാണ് അപ്പോള് ഞാനൊരു ലീവിനുവേണ്ടി ഒരു ലീവ് വേണമായിരുന്നു കുഞ്ഞിന് ഒരു നാലു ദിവസത്തേന് ലീവ് വേണമായിരുന്നു അതൊന്നു ചോദിക്കാൻ വേണ്ടിയായിരുന്നു വിളിച്ചത് ഞങ്ങളൊരു ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മേടം ഞങ്ങളൊരു ഫാമിലി ടൂര് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോഴതിന് വേണ്ടിയായിരുന്നു ഇല്ല മേടം എൻ്റെ ആങ്ങളയൊക്കെ വരുന്ന ആ സമയത്തായിരുന്നു ഇല്ല എൻ്റെ ആങ്ങളയും ഭാര്യയൊക്കെക്കൂടി ഈ സമയത്താണ് വരുന്നത് അപ്പോഴവര് വരുമ്പോള് ഞങ്ങളെല്ലാരുംകൂടെ പോകണമെന്നാണ് അവരുടെ ആഗ്രഹം അതുകൊണ്ടാണ് ഞങ്ങള് ഈ സമയത്തിന് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങള് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് അതുകൊണ്ട് മാഡം ഒരു നാലു ദിവസത്തേന് ലീവ് തരണം അവന് അതല്ല മാഡം അതൊക്കെ ഞാന് നോട്ട്സൊക്കെ ഞാന് എഴുതി ആരെ എഴുതിയെടുത്ത് എഴുതി എടുത്തോളാം ഞാന് എന്നിട്ട് ഞാന് വീട്ടിലിരുന്ന് പഠിപ്പിച്ചോളാം അതുകൊണ്ട് മാഡം എനിക്ക് ഇതിനുവേണ്ടി ഒന്ന് ഹെൽപ്പ് ചെയ്യണം തീർച്ചയായിട്ടും മാം തീർച്ചയായിട്ടും മാഡം ആ മനസ്സിലാവും മേടം മനസ്സിലാവും അ മനസ്സിലാവും എനിക്ക് ഞാനത് ചെയ്തോളാം വേണ്ടതുപോലെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം ഞാൻ അവനെ ശ്രദ്ധിച്ചോളാം നോട്സൊക്കെ എഴുതിക്കോളാം ഞാനവനെ ടേമില് അടുത്ത ടേമില് നല്ലതുപോലെ മാർക്ക് മേടിക്കാൻ ഞാൻ ശ്രമിച്ചോളാം ആ ആ ആ ഉറപ്പുണ്ട് മാഡം ഉറപ്പുണ്ട് ഉറപ്പുണ്ട് ഉറപ്പുണ്ട് ഉറപ്പുണ്ട് ഞാനത് ചെയ്തോളം അങ്ങനെ ചെയ്തോളാം ഞാൻ ആ ഓക്കെ താങ്ക്യു മാം ആ ഓക്കെ മാഡം ഓക്കെ മാഡം താങ്ക്യു താങ്ക്യു ആ ആയിക്കോട്ടെ മേടം ഞാനങ്ങനെ ചെയ്തോളാം ലീവൊക്കെ എഴുതി തന്നോളാം അതിനുള്ള ഞാന് സ്കൂളിലോട്ട് വരണോ അതോ ആ ഞാൻ സ്കൂളിലോട്ട് വന്നോളാം ഞാൻ സ്കൂളിലോട്ട് വന്നിതെല്ലാം എഴുതിത്തന്നോളാം എഴുതിത്തന്നോളാം ഞാന് നോട്ട്സുമൊക്കെ ഞാൻ എഴുതിക്കോളാം ടീച്ചറിനെ മാഡം ഞങ്ങളെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ഇത് ചോദിച്ചത് അല്ലെന്നുണ്ടെങ്കില് കുഴപ്പമില്ലായിരുന്നു കാരണം അവര് വന്നതുകൊണ്ട് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തതാണ് അതു കൊണ്ടാണ് ഹേ ഇല്ല ആ ആ ആ

ആ ഓക്കെ ഓക്കെ താങ്ക്യൂ താങ്ക്യൂ